സാറ് ഇതൊരു മുൻസിപ്പൽ ഓഫീസ് അല്ലേ നമ്മൾ നമ്മളെ ഈ പ്രദേശത്തെ ഇപ്പം നമ്മൾ വിളിക്കുന്ന നമ്മൾ കട്ടപ്പനയിൽ നിന്നായിരുന്നു നമ്മൾ ഈ പ്രദേശത്തെ ഒരു പൊതുപരിപാടി നടന്നതിന് ശേഷം ഭാഗം മൊത്തം വളരെ വൃത്തിഹീനമായി അലങ്കോലപ്പെട്ടു കിടക്കുന്നു അവിടെ അവിടെ ചപ്പു ചവറുകളൊക്കെ കിടക്കുന്നത് ഇതുപോലെ പൊതു പരിപാടി നടന്നു കഴിയുമ്പോൾ മിക്കപ്പോഴും ഇവിടെ കാണുന്നതാണ് ഈ ഈ ഭാഗത്തുള്ള പ്രദേശത്തിൽ അവർ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ പാത്രങ്ങളൊക്കെ വലിച്ചു എറിഞ്ഞിട്ട് കുപ്പികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് വഴി വലിച്ചെറിഞ്ഞിട്ട് പോവുന്നു അതൊരു മഴക്കാലം ആവുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഈ പ്രദേശവാസികൾക്ക് അപ്പം ഈ ഇതുപോലെയുള്ള പൊതു പരിപാടികൾ നടത്തുമ്പോൾ അവർ നാനും ഭാരവാഹിത്തം വഹിക്കുന്ന ആൾക്കാർ തന്നെ അത് ഒന്നു ക്ലീൻ ചെയ്തു വൃത്തിയാക്കി ഇടുവാണെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് വളരെ ഉപകാരം ആവുമായിരുന്നു അതായത് ഇവിടെ പകർച്ച വ്യാധികളൊക്കെ ഉണ്ടാവുന്നു ഒരുപാട് ആൾക്കാർ തിങ്ങി പാര്ക്കുന്നത് പോലെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പം അവർക്ക് ഒരു അസൗകര്യം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അത് നമുക്ക് ഒന്നു ഒഴിവാക്കുകയും ചെയ്യണം അപ്പം അത് ഇങ്ങനെയുള്ള പരിപാടികളാണ് അത് പൊതു പരിപാടി നടത്തുന്നത് ആരാണ് അത് അവർ അവർക്ക് അവർ വൃത്തിയാക്കിയില്ല എങ്കിൽ അവർക്ക് അത് പെറ്റി അടിക്കോ അല്ലേ അത് അവർ വൃത്തിയാക്കുന്നതിന് ആവശ്യമായ പൈസ അവിടുത്തെ മുൻസിപ്പാലിറ്റിയിലേക്ക് കെട്ടി വയ്ക്കുകയോ ചെയ്യണമെന്ന് ഇത്ര ഇങ്ങനെ ചെയ്യാത്തവർക്ക് കർശനമായ നടപടികളിലൂടെ ഇങ്ങനെ ഒരു പൊതുപരിപാടി മേലിൽ ഇവിടെ നടത്താൻ അനുവദിക്കയില്ലാ എന്നൊരു നിയമം ഇറക്കണമെന്നൊക്കെ താല്പര്യമുണ്ട് സാറേ അതേപോലെ തന്നെ ഈ പ്രദേശത്തെ ഈ മാലിന്യം ഒരു ഇടത്ത് തന്നെ കൂമ്പാരപ്പെട്ടു കിടക്കാതെ അതുകൊണ്ട് അത് അത് അവിടുത്തെ കൗണ്സിലിങ്ങിന്റെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് ആ മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുന്നു കൂടി കിടക്കുന്നത് അവിടെ തഴത്തെ ജംഗ്ഷൻ്റെ ഭാഗത്തെക്കെ കിടക്കുന്ന ആ മാലിന്യങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒന്ന് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഒഴിവാക്കി നടത്താൻ ഈ ഭയം കണ്ടമാനം ഈച്ച ശല്യമുണ്ട് തെരുവുനായയുടെ എണ്ണം കൂടുന്നു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുവാന് തന്നെ ആയിട്ട് ഇതെല്ലാം ഒന്ന് ഇവിടുത്തെ ഈ ആയ ആവശ്യമില്ലാത്ത ചപ്പു ചവറുകളും വേസ്റ്റുകളും അവശിഷ്ടങ്ങളൊക്കെ ഒന്നു മാറ്റി തരുവേണ്ടത് അതിനുള്ള ഒരു നിർദ്ദേശങ്ങളും അതിന് മുൻസിപ്പാലിറ്റിയോ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും അതുപോലെ പൊതു പരിപാടി നടത്തുമ്പോൾ അവരെക്കൊണ്ട് തന്നെ ആ മാലിന്യങ്ങൾ ഒഴിവായിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നു ഓർമ്മപ്പെടുത്താനും കൂടെയാണ് സാറെ ഞാന് വിളിച്ചത് അതുപോലെ പകർച്ചവ്യാധിക്ക് എതിരെ ഇപ്പം ധാരാളം ഈച്ച കൊതുക് ശല്യങ്ങൾ കൂടി വരുന്നുണ്ട് ഇതിനേക്കും മാലന്യം കുന്ന് കൂടി കിടക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ഒിഴിവാക്കനായിട്ടും റോഡൊന്ന് വൃത്തിയാക്കി ക്ലീനിങ് മുൻസിപ്പാലിറ്റി ആക്കാനായിട്ടും സാർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമപ്പെടുത്താനാണ് ഞാന് വിളിച്ചത് ഓക്കേ സാർ താങ്ക് യു